നമസ്കാരം സാർ ആ വരൂ ഇരിക്കൂ ആ പറയൂ ആ

ആ ഓക്കെ അപ്പം ആ ഞങ്ങൾക്ക് ഒരുപാട് ഒപ്ഷൻസ് ഉണ്ട് സാർ ഞങ്ങൾ ഓൾ ഓവർ ഇന്ത്യ എല്ലാവരുടെയും ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏത് ഡെസ്റ്റിനേഷനാണ് നിങ്ങൾക്ക് താൽപര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഇതാക്കാം

ഓക്കെ നമുക്ക് കൊടൈക്കനാലുണ്ട് കുളുമണാലി മൂന്നാർ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ അവൈലബിലിറ്റി ഉണ്ട് ഡിസ്റ്റൻസ് കൂടിയത് നമുക്ക് കുളുമണാലി തന്നെ നമുക്ക് എന്ന പ്ലാൻ ചെയ്യാം

ഓക്കെ ആ ഫാമ് എട്ട് പേരുണ്ട് നമുക്ക് ഒരാൾക്ക് അവിടേക്ക് ചിലവ് വരുന്നത് മൂവായിരം രൂപയാണ് മൂവായിരം രൂപയാണ് അതിൽ നമുക്ക് എല്ലാം ആ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ആ നമുക്ക് എല്ലാം ഒരു ഫുഡ്ഡ് അക്കമഡേഷൻ അതേപോലെ ട്രാവെലിങ്ങ് എക്സ്പെൻസ് എല്ലാം അതിൽ വരുന്നുണ്ട് ആ എല്ലാംകൂടി ചേർത്ത് ഒരാൾക്ക് മൂവായിരമാണ് വരുന്നത് പിന്നെ നിങ്ങൾ എട്ട് പേരുള്ളതുകൊണ്ട് നമുക്ക് അതിൽ ഡിസ്കൗണ്ട് ചെയ്യാം ആ ഓക്കെ ആ അത് നമ് ആ നമ്മൾ ആ അത് നമുക്ക് പ്ലെയിൻ ആവാം ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്കുണ്ട് ഇത്രയും ദൂരം ആയതുകൊണ്ട് പത്ത് ദിവസമാണ് നിങ്ങളുടെ ഇതെന്ന് നമ്മൾ പറഞ്ഞല്ലോ ആ പത്ത് ദിവസമായതു കൊണ്ട് നമുക്ക് പല അവിടുത്തെ എല്ലാ ഒരു ട്രാവൽ ഗൈഡ് നമ്മടെ ഒപ്പം ഉണ്ടാവും അവർ നമ്മളെ എല്ലാ സ്ഥലങ്ങളും കാണിക്കാൻ അങ്ങനത്തെ സംഭവങ്ങൾ എല്ലാ ഉണ്ട് അതുപോലെ അവിടെ നമ്മടെ ആ ഓക്കെ ഓ അതെല്ലാവേ ആ ആ സാർ ആ ഞങ്ങളെ വിശ്വസിക്കാം ഞങ്ങളിപ്പോൾ എത്ര പത്ത് വർഷത്തോളമായി ഞങ്ങൾ ഈ ബിസിനസ്സ് ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾക്ക് ട്രഷറാണ് ഞങ്ങൾ അവിടുത്തെ ഞങ്ങളുടെ ട്രാവൽ ഗൈഡ് കസ്റ്റമർ കെയറും എല്ലാം അത്രയും എഫിഷ്യന്റാണ് ആ അപ്പോ സാർ എന്ത് ഏത് ഡേറ്റിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്

ഏത് ഡേറ്റിലേക്കാണ് സാറ് പ്ലാൻ ചെയ്യുന്നത്

ഓക്കെ ആ മുപ്പത്തൊന്നിനാണ് ആ ടൈമിലുള്ള ഞങ്ങളുടെ പാക്കേജ് എടുക്കുവാണെങ്കിൽ സാറിന് ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവും ഞങ്ങളുടെ ഇപ്പോൾ ഓഫർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ആ ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ടിൽ ഞങ്ങൾ ആ ആ അത് ഓക്കെയാണ് സാർ സാർ ഞങ്ങൾക്ക് ആ ഡീറ്റേയ്ൽസും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്കൊന്ന് ഞങ്ങൾക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി ആ ആ അതിന്റൊപ്പം എന്താ ബാക്കി ചെയ് ആ അത് ഞങ്ങൾ കോൾ ചെയ്യാം ബാക്കി പേയ്മെന്റിന്റെ കാര്യങ്ങളും എല്ലാം ഞങ്ങൾ പറയാം ആ അതുപോലെ ബാക്കി സാറിന് വേണ്ട എക്സ്ട്രാ എന്തൊക്കെ വേണമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതും ഞങ്ങൾ ചെയ്യാം അതായത് നിങ്ങൾക്കിപ്പോൾ ലക്ഷുറി സീറ്റ് കാര്യങ്ങളെന്തെങ്കിലും ഹോട്ടലിലോ

ഓക്കെ പിന്നെ ക്യാമ്ഫയർ അങ്ങനതെ കാര്യങ്ങളൊക്കെ

ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ അപ്പം ഞങ്ങൾ ഇത് ഫിക്സ് ചെയ്തിട്ട് സാറിനെ അറിയിക്കാം ഓക്കെ ശരി എന്നാൽ താങ്ക് യൂ താങ്ക് യൂ